ഇപ്പോൾ നിലവിലിപ്പോൾ ഭൂമിയുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഇപ്പോൾ വീടുകളും കെട്ടിടങ്ങളും തിങ്ങിനിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ നാല് മക്കളുണ്ടെങ്കിൽ പണ്ട് കൂട്ടുകുടുംബം രീതിയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നാലു മക്കൾക്കും നാല് വീടാണ് വീടുകളുടെ എണ്ണം കൂടുന്നു പക്ഷെ ഭൂമിയുടെ സ്ഥലം കൂടുന്നില്ല വികസനം ഭൂമിക്ക് വരുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഉൾപ്രദേശങ്ങളിലേക്കും എല്ലാവരും വീട് വച്ചു തുടങ്ങി വലിയ വലിയ ഐ ടി കമ്പനീസും കോളേജുകളും വലിയ വലിയ കെട്ടിടങ്ങളുമൊക്കെ എല്ലാം ഇപ്പോൾ ഈ ഏക്കറുകണക്കിന് സ്ഥലമുള്ള ഉൾപ്രദേശങ്ങളിൽ പോയിട്ടാണ് എഞ്ചിനിയറിംഗ് കോളേജുകൾ അങ്ങനെയെല്ലാം ഈ ഉൾപ്രദേശങ്ങളിൽ പോയിട്ടാണ് അവർ സ്ഥലം മേടിച്ച് ഏക്കറുകണക്കിന് സ്ഥലം മേടിച്ച് ഈ കെട്ടിടങ്ങൾ പണിയുന്നത് അതുകൊണ്ടുതന്നെ കർഷകർക്ക് അതൊക്കെയൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ ഒരു ജീവിത മാർഗ്ഗം എന്നു പറയുന്നത് കൃഷിയും കാര്യങ്ങളുമാണ് പക്ഷേ ഇങ്ങനെ ഏക്കറുകണക്കിന് സ്ഥലങ്ങൾ ഇതാക്കുമ്പോൾ അവരുടെ ഭൂമിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഭൂമി സ്വന്താക്കാവുന്ന ഒരു കേസിലുണ്ടാവുന്നു ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഭൂമിയാണെങ്കിലും വിട്ടുകൊടുക്കേണ്ടൊരു അവസ്ഥ അത്ര അതിനൊരു ക്യാഷ് കൊടുത്ത് സെറ്റിലാക്കാൻ നോക്കിയാലും അവരുടെ ലൈഫൊരിക്കലും സേഫ് ഇതാവുന്നില്ല അവരുടെ തൊഴിൽ ഇല്ലാണ്ടാവുകയാണ് അവരുടെ ഉപജീവനമാർഗ്ഗമാണത് അതാണ് ഇപ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കർഷകർ ഫേസ് ചെയ്യണത് എല്ലായിടത്തും ഇപ്പോൾ ഭൂമി കുറഞ്ഞുവന്നുകൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും വലിയ വലിയ കെട്ടിടങ്ങൾ ഭൂമിക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് പണ്ടു ഉള്ളപോലത്തെ ബുദ്ധിമുട്ടുകൾ അതിനേക്കാളിപ്പോൾ കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ട് പത്ത് മുപ്പത് വർഷമായിട്ടും മഴക്കാലത്ത് വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിത്തുടങ്ങി പ്രളയസമയത്തുപോലും വെള്ളം കയറാത്തയിടത്തൊക്കെ ഇപ്പോൾ വെള്ളം കയറിത്തുടങ്ങി കാരണം കെട്ടിടങ്ങൾ കാരണം വെള്ളത്തിനൊന്നും ഒഴുകി കടലിലേക്ക് ചേരാനുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാം തടസ്സങ്ങളും ബ്ലോക്കുകളും ആണ് അതുകൊണ്ടുതന്നെ വെള്ളം മുഴുവനായിട്ട് കടലിലോട്ട് എത്തിപ്പെടാനും എല്ലാം ബുദ്ധിമുട്ടുതന്നെയാണ് അതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നതും ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കർഷകർക്ക് അവരുടെ സ്ഥലം കൃഷി ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കണം അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കരുത് എന്നുതന്നെയാണ് എൻ്റെ അഭിപ്രായം